ഞാൻ കഴിഞ്ഞ പതിമൂന്നാം തീയതി ഒരു ഷേർട്ട് നിങ്ങളെ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു അത് എനിക്ക് ഇവിടെ ലഭിച്ചപ്പോൾ എൻ്റെ സൈസ് അല്ലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ വേറെ ഒരു സൈസിനെക്കാൾ ഒരു തൊട്ടു താഴത്തെ സൈസ് ആണ് ഞാൻ അറിയാതെ വാങ്ങിച്ചു പോയത് ഇപ്പം എനിക്ക് അത് റിട്ടേൺ ചെയ്തിട്ട് മാറി വാങ്ങാനായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത സൈസ് നാല്പതാണ് എനിക്ക് വേണ്ടിയ സൈസ് നാല്പത്തി രണ്ട് ആണ് അപ്പോൾ റിട്ടേണിൻ്റെ പ്രൊസീജിയർ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എപ്പോഴത്തേക്ക് നിങ്ങക്ക് പിക്കപ്പ് ചെയ്യാൻ വരാൻ പറ്റും അല്ലേൽ ഞാൻ എന്തേലും പാക്കിംഗ് ചെയ്യണോ എന്തേലും സ്റ്റിക്കേഴ്സ് ഒട്ടിക്കണോ സാധാരണ ഞാൻ മറ്റു സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ തരുന്നതാണ് അപ്പോൾ ഇതിനെന്തൊക്കെ ചെയ്യണമെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു മറ്റ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ വിവരം കൂടെ അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു